നമ്മുടെ ട്രക്കിങ് സ്ഥലങ്ങളിലൊക്കെ നല്ലരീതിയിൽ മാലിന്യങ്ങൾ കണ്ടുവരുന്നൊരു ടൈമാണ് അതായത് ട്രക്കിങ്ങിനു വരുന്ന ആൾക്കാരൊക്കെ വെറുതെ അശ്രദ്ധമായി കുട്ടികൾ തൊട്ടു മുതിർന്നവർ വരെ അശ്രദ്ധമായി എന്താ മാലിന്യങ്ങൾ വെറുതെ ഫുഡ് കഴിച്ചത് അതുപോലെതന്നെ അവർ കൊണ്ടുവന്ന വെള്ളത്തിൻ്റെ അങ്ങനെയൊക്കെ കുട്ടികൾ അതെല്ലാം വെറുതെയിങ്ങനെയൊരു വലിച്ചെറിയുന്നൊരു പ്രതിഭാസമാണ് നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ടെന്താണ് നമ്മുടെ ട്രക്കിങ് സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ മലിനമായി കിടക്കുകയാണ് എത്രയാണെന്നു വെച്ചിട്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലീൻ ചെയ്യും തോറും എസ്യൂസെറിയുന്നതു കൊണ്ട് അതിനൊരു പൂർണ്ണമായൊരു വൃത്തി ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ നമുക്കിത് വൃത്തിയായിട്ടു സൂക്ഷിക്കുന്നതെന്നു വെച്ചാൽ ഒന്നെന്നു വെച്ചാൽ എല്ലാവരെയും അവെയർ ചെയ്യിക്കുക അങ്ങനെ ചെയ്യരുത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അതൊരു തെറ്റായ കാര്യമാണ് അതു നല്ലതല്ല എന്ന ആ ഒരു അവെയർനെസ്സ് അവരെ വരുത്തുക

സാധനങ്ങളുടെ അവൈലബിലിറ്റി മ നശിച്ചുപോകുന്ന മാലിന്യങ്ങൾ സാധനങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് എന്തു ചെയ്യുക അതിൻ്റെ അവൈലബിലിറ്റി കൂട്ടാൻ അങ്ങനെയുള്ള ചില മെത്തേഡ്സാണ് നമുക്കിത് കുറക്കാൻവേണ്ടി സഹായിക്കുന്നത്